സാരിയോ എങ്ങനത്തെ മോഡലാണ് വേണ്ടത് സെറ്റ് സാരിയാണോ ഏതാണ് ചേച്ചി നോക്കിക്കോ ദാ ഇതൊക്കെ സാരികളാണ് അ ആ ദാ ഇതല്ലേ ചെച്ചി ആ ഇത് ചേച്ചി നോക്കിക്കോ ഇതിൽ കളർ മാറ്റി മാറ്റിയുള്ള ഇതുണ്ട് പച്ചയോ ഇതാണോ ഇതിന് അപ്പുറത്തെയോ ഇതാണോ ചേച്ചി ആ ഇത് ചേച്ചി നോക്കിക്കോ ഇതിന് ആയിരത്തി സംതിങ്ങ് വരും അതെയോ ആ എന്നാൽ നമുക്ക് അപ്പുറത്ത് അപ്പുറത്ത് പോകാം ഇതാ ചേച്ചി ഇവിടെ നോക്കൂ അതെയോ അതെയോ ദേ ഇതാ ചേച്ചി ആ കുഴപ്പമില്ല ആ ചേരുന്നുണ്ട് നന്നായിട്ടുണ്ട് ഇതിന് അറുനൂറ് രൂപ വരും അത് നമ്മൾ കുറച്ച് തരാം ചേച്ചി ഇഷ്ടമുള്ളത് എടുത്തോ അത് ആ നമുക്ക് ഇത് ആ കാണിച്ച് തരാം ചേച്ചി ഇപ്പുറത്ത് വന്നേ നൈറ്റ് ഡ്രസ്സ് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് നൈറ്റിയാണോ അതെ അതെ കാണിച്ചാരെ ചേച്ചി ഇത് നോക്കിയേ കറുത്ത കളർ ഇതാണോ ചേച്ചി ഇതിന് മുന്നൂറ് രൂപ വരും അത് നമ്മൾ അഡ്ജസ്റ്റ് ആക്കി തരും ചേച്ചി എടുത്തോ പേടിക്കേണ്ട സിൽക്ക് സാരിയോ ദാ ചേച്ചി ഇത് നല്ല തുണിയാണേ ഇതാണിപ്പോൾ എല്ലാവരും കൊണ്ടുപോകുന്നത് ആ നല്ല മെറ്റീരിയൽസ് തുണിയാണ് ഇപ്പോൾ എല്ലാവരും എടുത്ത് എടുത്ത് പോകുന്നതും ഇതാണ് ഇതിൽ അതാ മഞ്ഞ ഉണ്ട് ചുവപ്പ് അതൊക്കെ ഈ ഇത് ഈ തുണി തന്നെയാണ് ആ കാണുന്നത് ആ എടുത്ത് തരാമേ ഇതാ ചേച്ചി

ചേച്ചിക്ക് നന്നായിട്ട് രണ്ടും ചേരും വേറെ ഇതാ ഇതാ ചേച്ചി ഇതൊക്കെ ഇതേ തുണിയാണ് ഇതൊക്കെ നോക്കിക്കോ ചേച്ചിക്കിഷ്ടമുള്ള കളർ പറഞ്ഞോ ഞാനെടുത്ത് തരാം ആ ഇതാ ചേച്ചി ഇത് നോക്കിയേ ആ നോക്കട്ടെ ഇതിൻ്റെ വേറെ കളർ ഇല്ല ചേച്ചി പിന്നെ ഇത് ഈ മഞ്ഞ നീല അതൊക്കെയേയുള്ളൂ ഇതിന് നാനൂറ് രൂപേൻ്റെ അടുത്ത് വരും ആ ഓക്കെ ഓക്കെ ആ തരാം തരാം ഇതാണോ വേണ്ടത് ചേച്ചി വേറെയൊന്നും വേണ്ടേ